എൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്നത് രണ്ട് മൈന രണ്ട് കാക്ക രണ്ട് പ്രാവ് പിന്നെ അത് ചെമ്പോത്ത് അതായത് ഉപ്പൻ എന്നു പറയുന്ന സാധാ അതാണ് ഇത്രയും പക്ഷികളാണ് സ്ഥിരമായിട്ട് കാണപ്പെടുന്നത് അവയില് എനിക്കേറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് പ്രാവുകളെയാണ് അവർ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് എന്ത് സാധനം ഉണക്കാൻ ഇട്ടാലും അപ്പോഴവര് വരും വന്നുകഴിഞ്ഞ് അതിൻ്റെ സീഡ്സുകളെല്ലാം അവര് കൊത്തി കൊത്തി കൊത്തി കഴിച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്